ഒന്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് ആറ് ലക്ഷത്തി അന്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്